അതായത് ഈ സ്ഥലങ്ങളെ കുറിച്ച് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ ഈ സ്ഥലത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന അതായത് പണത്തിനോട് ആർത്തിയുള്ളവരൊക്കെ ഈ സ്ഥലത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നവരുണ്ടാവും അതായത് ഇപ്പം ഉദാഹരണത്തിന് ഒരു കരകൗശല മേഖല അതായത് ഒരു ആ ഒരു കുപ്പി അതായത് ഈ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഓട വെച്ചിട്ട് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് വെച്ചോ അപ്പം അവർ പറഞ്ഞു ആ ഷോപ്പൊഴികെ ബാക്കി ചുറ്റിനുള്ള സ്ഥലം മൊത്തം എടുത്തോ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഷോപ്പ് കിട്ടിയേ തീരുള്ളൂ ആ ഇരിക്കുന്ന സ്ഥലം കൂടി വാങ്ങണം അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കമ്പനി ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇനി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജോബ് ഓപ്പർച്യണിറ്റി അവരും അതേപോലെത്തന്നെ ആ ജോബ് എടുത്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നത് അതായത് അതിൻ്റകത്ത് നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ വർക്ക് ചെയ്യുന്നത് ഇഷ്ടംപോലെ പേരുണ്ടാവില്ലേ അപ്പം ഇവർക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റകത്ത് സ്പെയ്സ് ഉള്ളതുണ്ടാണ് അവർ അതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് സ്ഥലം കാരണം ബിസിനസ്സ് ചെയ്യാൻ പറ്റിയ പറ്റാണ്ട് പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സ്വത്തവകാശം പകർപ്പവകാശം ഇവ ഇതൊന്നും ഒരിക്കലും പാടില്ല സ്വത്തവകാശം എല്ലാവരുടെയും ആണ് അങ്ങനെ വിചാരിക്കുക